എല്ലാ ദിവസവും നമ്മളെ സഹായിക്കുന്ന ആപ്പുകളെന്ന് പറഞ്ഞാല് ഞാനൊരു ഉപയോഗിക്കുന്നാപ്പ് ഡെയ്ലി ആപ്പെന്ന് പറഞ്ഞൊരു ആപ്പുപയോഗിക്കുന്നുണ്ട് അത് നമ്മളിപ്പോള് നേരത്തേയൊക്കെയെന്നു പറഞ്ഞാല് നമുക്ക് സൗകര്യങ്ങളില്ലാഞ്ഞ സമയത്ത് നമ്മള് നോട്ട് ബുക്കുകള് നമ്മുടെ ഡയറിയോ നോട്ട് ബുക്കൊക്കെക്കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും എഴുതിവയ്ക്കുന്നത് വീട്ടിലാണേലും എന്തേലുക്കെ സാധനങ്ങൾ മറന്നുപോയാല് ഉടനെ നമ്മളത് എഴുതിവയ്ക്കും ഒരിടത്തും പോകുമ്പോഴാണെങ്കിലും ക്ലാസ്സുകള് കേള്ക്കുമ്പോള് നമ്മളങ്ങനെ ആ ഒരു രീതിയിലല്ലെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് ഇപ്പോള് അതല്ല ഇപ്പോള് ഈ ഫോണിനകത്ത് ഈ ആപ്പുള്ളതു കൊണ്ട് ഡെയിലി ഉള്ള കാര്യങ്ങള് എല്ലാന്തന്നെ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്കെന്തേലും പുറത്ത് പോകുമ്പോഴാണേലും നമക്കെന്തേലും വാങ്ങിക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കില് അത് നോട്ട് ചെയ്തുവയ്ക്കാന് അത് കണക്കെന്നെ നമുക്ക് ചെലവുകള് വരുന്നത് വീട്ടിലെ ഓരോ സാധനത്തിനും ചെലവാക്കുന്ന എന്തൊക്കെ സാധനങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി എന്തിന് വേണ്ടി അത് എടുത്തു അല്ലെങ്കിലെത്ര രൂപ ആ ഒരു രീതിയിലൊക്കെ ചെയ്തുവയ്ക്കാന് സാധിക്കുന്നുണ്ട് അപ്പോള് റിമൈൻറ്ററായിട്ട് ഇടുന്നതു കൊണ്ടു തന്നെ എന്തെങ്കിലുമൊക്ക കാര്യങ്ങള് നമുക്കിപ്പോള് ഓർത്തുവയ്ക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് റിമൈൻഡർ എന്നൊരു പേജുള്ളതുകൊണ്ടുതന്നെ അതിനകത്തിട്ടുവച്ചാല് നമ്മള് മറന്നുപോകാതെ നമുക്ക് കാര്യങ്ങളെല്ലാന്തന്നെ ഓർമ്മപ്പെടുത്തിയെടുക്കാനുമൊക്കെ സാധിക്കുന്നൊരാപ്പ് അപ്പോള് എനിക്കൊക്കെ വളരെ പ്രയോജനകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഡെയിലി എന്റെ എന്റെ ദൈനംദിന ജീവിതത്തിലെ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും അപ്പോള് ഒരുപാട് കാര്യങ്ങള് മറന്നുപോകുന്നോണ്ട് അപ്പോഴത് നോട്ടേയ്തു വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സൗകര്യം നമ്മടെ ഫോണില്ത്തന്നെ നമ്മള് കൂടെ കൂടെ കൊണ്ടുനടക്കുന്നത് കൊണ്ടുതന്നെ നമുക്കെപ്പോഴും എടുത്ത് നോക്കാനും നമുക്കത് കറക്റ്റെയ്തുകൊണ്ട് എഴുതിവെക്കാനുള്ളത് എഴുതി നോട്ടെയ്ത് വെക്കാനുള്ളത് നോട്ടെയ്ത് വെക്കാനും റിമൈൻഡറിടാനുള്ളത് റിമൈൻഡ് ചെയ്യാനും വരവ് ചെലവ് കണക്കുകള് എഴുതിവയ്ക്കാനും എല്ലാന്തന്നെ ഇത് നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്